ആ ഹലോ ചേട്ടാ ഒരുപാട് നന്ദി ഞാൻ ഈ ഒരു നഗരത്തിലെ പുതിയൊരു ആളാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടത്തെ സ്ഥലങ്ങളൊന്നും എനിക്ക് പരിചയം ഇല്ല അപ്പോൾ ചേട്ടന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുകൊണ്ടും ശരിയായ സ്ഥലത്തിറങ്ങാന് അനുവദിച്ചതുകൊണ്ടും അതിന് സഹായിച്ചതുകൊണ്ടും ഒരുപാട് നന്ദി നിങ്ങളെപ്പോലുള്ള നല്ല ഡ്രൈവേര്സ് ആണ് നല്ല യാത്രക്കാരെ സൃഷ്ടിക്കുന്നത്